ആ ഇപ്പോഴത്തെ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ നമ്മൾ പഠിച്ചു തന്നെയിരിക്കണം കാരണം മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് സ ഇപ്പോഴത്തെ എല്ലാം മൊബൈലിൽ ഓരോ ആപ്പുകൾ വഴിയായാലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ സാങ്കേതിക വിദ്യകൾ നമ്മൾ അറിഞ്ഞു തന്നെയിരിക്കണം അതിൻറ്റെ പ്രയോജനം എന്നു പറയുന്നത് നമ്മൾ ഒരു ഓരോ കാര്യങ്ങൾക്കു മുൻപോട്ടു പോകുമ്പോൾ ഒരു മൊബൈൽ ഒരു നമുക്കൊരു ബാങ്കിൻറ്റെ ഒരാപ്പ് എടുക്കാനോ ഒരു ഗൂഗിൾ പേ ചെയ്യാനോ ഇതിനൊക്കെ നമ്മൾ ഇതു പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമായൊരു കാര്യം തന്നെയാണു കാരണം നമ്മളേത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വഴി തെറ്റി പോകുമ്പോൾ ഒരു ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാനും ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിൽ ഇതിൻറ്റെ ഇതിൻറ്റെ ആവശ്യം ഇപ്പോൾ അത്യാവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യം തന്നെയാണ് കാരണം എന്നു പറയുന്നത് നമ്മളുടെ മുൻപോട്ടുള്ള കാലങ്ങളിൽ എല്ലാം സാങ്കേതിക വിദ്യ വഴിയുള്ള ഓരോരോ കാര്യങ്ങളായിരിക്കും അപ്പം അതിന് തരണം ചെയ്യണമെങ്കിൽ അതിൻറ്റെ കൂടെ അതിനെ തരണം ചെയ്ത് നമുക്ക് മുൻപോട്ടു പോകണം എന്നുണ്ടെങ്കിൽ നമ്മളത് നല്ലതായിട്ടു പഠിച്ചിരിക്കുക തന്നെ വേണം പഠിച്ചിരുന്നേ പറ്റത്തുള്ളു അതു പോലെ തന്നെ നമ്മുടെയിപ്പൊരു ബിസിനസ്സ് തന്നെ ആയാലും ആ ബിസിനസ്സിനെ വളർത്തണമെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം വഴിയോ ഒരു ഫേസ്ബുക്ക് വഴിയോ ഒരു വാട്സാപ്പ് വഴിയോ ഒക്കെ നമ്മൾ അതിൻറ്റെ ഫോട്ടോസുകളും ഇതൊക്കെ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ അത് ഒത്തിരി മറ്റുള്ളവർ ഒത്തിരി കണ്ട് അതൊക്കെ വഴി അവർക്ക് രക്ഷപ്പെടാനൊക്കെ സാധിക്കുന്നുണ്ട് അതു കൊണ്ട് സാങ്കേതിക വിദ്യ പഠിച്ചിരിക്കുകയെന്നുള്ളത് നിർബന്ധം തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള പോക്കിന് അതു ഭയങ്കരമായിട്ടു ഭയങ്കരമായിട്ടു പാടുപെടുന്നതായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റും കാരണം പഴയ തലമുറക്കൊക്കെ ഒത്തിരി ഒരു ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്യുവാനോ ഒരു ഗൂഗിൾ മാപ്പ് തപ്പിയെടുക്കാനോ ഒക്കെ അവർക്കൊത്തിരി പാടുപെടുന്നുണ്ട് അവർ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറ അതിനെല്ലാം മുന്നോട്ടിറങ്ങുന്നുണ്ട് പക്ഷെ ഇതെല്ലാം പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങളിൽ പോകും മുൻപോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കുകയുള്ളു അത്യാവശ്യമായൊരു കാര്യമാണ് സാങ്കേതിക വിദ്യ പഠിക്കുക എന്നുള്ളത് ഇതു പഠിക്കുന്നതു വഴി നമുക്ക് ഒരു നല്ല ഉയർച്ചയുണ്ടാകുവാനും ഒക്കെ സാധിക്കുന്നുണ്ട് നമ്മുടെ ഒരു മൊബൈലിലോ ഒരു മൊബൈൽ വഴിയും ഒരു ടി ഇപ്പൊരു മെബൈൽ ടി വി ഒന്നു വർക്ക് ഓണാക്കാൻ പോലും അറിയാത്തവരുണ്ട് ഇതിൻറ്റെയൊക്കെ ഇതൊക്കെ പഠിച്ച് ഒരു നമുക്കൊരു ലാപ്ടോപ്പൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുവാനും ഇപ്പം ബില്ലുകളൊക്കെ ഒന്ന് അടിക്കുവാനും ഒക്കെ എല്ലാം പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ് ഇനി മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളും സാങ്കേതിക വിദ്യ വഴി തന്നെ ആയിരിക്കും എല്ലാം ആയിരിക്കും മുൻപോട്ടു പോകുക നമ്മുടെ നമ്മളിപ്പോൾ എവിടെയായി എന്നുള്ളതൊരു ലൊക്കേഷൻ അയച്ചുകൊടുത്താൽ നമ്മൾ എവിടാ എവിടെയാണ് പെട്ടിരിക്കുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് അതു വഴി സാധിക്കുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങൾ നമുക്കതു വഴി നമുക്ക് കിട്ടുന്നുണ്ട് അതിൻറ്റേതായ പ്രയോജനങ്ങൾ നമുക്ക് അതു വഴി നമുക്ക് നേടുവാൻ സാധിക്കുന്നുണ്ട് ബിസിനസ്സ് പരമായിട്ടും

ജീവിതത്തിൻറ്റെ ഓരോ ജീവിതത്തിൻറ്റെ ഓരോ അവസ്ഥകളിൽ നമുക്ക് ചില കാര്യങ്ങൾ അതു വഴി നമുക്ക് നേ നടക്കുവാൻ നടത്തുവാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടുപോയാലും നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ മൊബൈൽ വഴി ആയാലും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം സാങ്കേതിക വിദ്യ നമ്മളെ ഒത്തിരി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതു വഴി ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലേക്ക് നമുക്ക് സാങ്കേതിക വിദ്യ വഴി കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ട് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇതു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈൻ വഴി പലതും പഠിക്കുവാനൊക്കെ മറ്റുമായിട്ടൊക്കെ സാങ്കേതികവിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ ഉള്ള കാര്യങ്ങളിലൊന്നും അറിയാത്തവർ ഇപ്പോൾ ഓരോന്നും ഓരോ ഇതെടുക്കുമ്പോൾ ഓരോ ആപ്പുകൾ വഴിയായാലും ഓരോന്നും പഠിച്ചു മുൻപോട്ട് ഓരോത്തർക്ക് തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സാങ്കേതിക വിദ്യകൾ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിൻറ്റേതായ അതിൻറ്റേതായ ഉയർച്ചകളും വളർച്ചകളും നമ്മുടെ ലോകത്തിൽ നമുക്ക് ഇവിടെ ഇന്ത്യയിലായാലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വളർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുള്ള അതിനെല്ലാം സാ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ വഴിയാണ് നമുക്ക് നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽത്തന്നെ നമ്മുടെ കയ്യിലൊരു ഇതു ലൊക്കേഷനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്നു കണ്ടു പിടിക്കാനും ഒക്കെ സാങ്കേതിക വിദ്യ നമ്മളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്